ആളുകൾ കാണാനായിട്ട് ഫോട്ടോ പ്രദർശിപ്പിക്കുന്നത് അത് വളരെ ചീപ്പായിട്ടുള്ളൊരു ഏർപ്പാടല്ലേ ഞാനൊരിക്കലും അങ്ങനെ ചെയ്യാറില്ല അതുകൊണ്ട് പിന്നെ അതെവിടെയാന്നുള്ളതിൽ പ്രസക്തിയില്ലല്ലോ അങ്ങനെ ചെയ്യുന്നതിലുള്ള അനുഭവം പറയാം ചെയ്തു കഴിഞ്ഞാലല്ലേ അതിൻ്റെ അനുഭവം നമുക്ക് കിട്ടത്തുള്ളു എങ്കിലും ചെയ്തിട്ടില്ല എങ്കിലും എനിക്ക് തോന്നുന്നത് നമ്മൾ നമ്മുടെ ഫോട്ടോ നമ്മൾ തന്നെ പ്രദർശിപ്പിച്ച് കഴിയുമ്പോഴ്ത്തേക്ക് അതിന് ആൾക്കാർ അതിനെ അതിന് തലയ്ക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് ആദ്യമേ ആൾക്കാർ ചോദിക്കും എനിക്കങ്ങനെയാണ് തോന്നുന്നത് അല്ലാതെ ഇപ്പം നമ്മളത്ര നമ്മളാരും അത്ര മഹാന്മാരൊന്നും അല്ലല്ലോ നമ്മുടെ ഫോട്ടോ ഒന്നും പ്രദർശിപ്പിക്കാൻ നമ്മൾ ഒരു സാധാരണ മനുഷ്യൻ സാധാരണ മനുഷ്യൻ സാധാരണമായ ജീവിത ശൈലികളുമായിട്ട് മുന്നോട്ട് പോകുന്നു അസാധാരണമായ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ലെന്നല്ല ഉണ്ടാവുന്നുണ്ടായിരിക്കാം എന്നാലും നമ്മളതിനെ അതിനെ അസാധാരണമായിട്ടല്ല നമ്മൾ അതിനേം സാധാരണ രീതിയിലാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സാധാരണ മനുഷ്യൻ നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്കും പിന്നെ നമ്മൾ കൂട്ടുകാർക്കൊക്കെ ആണേലും നമ്മളെ അറിയാം അതിനപ്പുറത്തേക്ക് നമ്മൾ ഒരു അല്ലെങ്കിൽ ഒരു വലിയ ബിസിനസ് മാഗ്നെറ്റായിരിക്കണം ആ രീതിയിലേക്കൊന്നും നമ്മൾ വളർന്നിട്ടില്ല ഭാവിയിൽ ഉണ്ടാവാൻ മേല എന്നൊന്നുമില്ല എങ്കിലും ഇതുവരെ അങ്ങനെ ഫോട്ടോഗ്രാഫി എടുത്ത് നമ്മൾ സ്വന്തം ഫോട്ടോ പ്രദർശിപ്പിക്കുന്നില്ല ഏറ്റവും അങ്ങേയറ്റം വന്നാൽ നമ്മൾ നമ്മുടെ ഒരു ഒരു ഫംഗ്ഷനെങ്ങാനും പോയാൽ അടുത്ത ബന്ധുക്കളുടെ കല്ല്യാണത്തിന് വല്ലതും പോയാൽ ഫോട്ടോ എടുത്താൽ അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കും അതായത് ആ വരൻ്റെയും വധുവിൻ്റെയും കൂടെ നിൽക്കുന്ന ഫോട്ടോ എടുക്കും അത് നമ്മൾ ചിലപ്പം ഫേസ് വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ നമ്മൾ സ്റ്റാറ്റസിടും അത്രതന്നെ അത് നമ്മളെ നമ്മളെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയല്ല ഒരു പരിധിവരെ നമ്മളാ ഫംഗ്ഷൻ അറ്റൻറ്റ് ചെയ്തു അല്ലേ ഇങ്ങനൊരു ഫംഗ്ഷനുണ്ടായിരുന്നൂന്ന് നമ്മുടെ കൂട്ടുകാരേം ബന്ധുക്കളെയും ഒന്ന് അറിയിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ഒരു ട്രിക്ക് എന്നേയുള്ളൂ അല്ലാതെ നമ്മൾ അതിനകത്ത് നമ്മൾ നമ്മുടെ ഫോട്ടോഗ്രാഫി പ്രദർശിപ്പിക്കാൻ അല്ലേ നമ്മുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ എന്നുള്ളതല്ലല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ഫങ്ക്ഷന് പോയി ആ പരിപാടിക്ക് പോയി ഇന്നയിടത് നമ്മൾ പങ്കെടുത്തുവെന്ന് നമ്മൾ അറിയിക്കുക പിന്നെ അതുപോലെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ നമ്മൾ നേതൃത്വം കൊടുക്കുന്ന എന്തേലും ഇവൻറ്റുണ്ടെങ്കിൽ ആ ഇവൻറ്റുകളുടെ പരസ്യവോ വല്ലോം നമ്മൾ സ്റ്റാറ്റസെക്കെ ഇട്ട് വിടും അതിനൊരു പരസ്യം കിട്ടാൻ വേണ്ടി ആ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി അതിനപ്പുറത്തേക്ക് നമ്മൾ ഒരു പ്രദർശനമോ ഒന്നും നമ്മൾ ചെയ്യാറില്ല ആകെക്കൂടി ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മൾ ഒരു കല്യാണത്തിനോ അല്ലെങ്കിലൊരു എന്തെങ്കിലും ഒരു പരിപാടിക്കോ പോകുമ്പോൾ ആ പരിപാടിയിൽ നിൽക്കുന്ന മെയിനാളുകളുടെ കൂട്ടത്തിൽ നിന്ന് നമ്മളൊരു ഫോട്ടോ എടുക്കുക അത് നമ്മൾ സ്റ്റാറ്റസിട്ക അപ്പോൾ കൂടുതൽ ആൾക്കാരുകൾ കാണുന്നു ഇന്ന നമ്മളവിടെ പോയിരുന്നു എന്ന് ആൾക്കാർ മനസിലാക്കൻ വേണ്ടി അത്രതന്നെ അല്ലെങ്കിലിപ്പോൾ ഒരു ഒരാൾ നമുക്ക് അട് നമുക്ക് അറിയാവുന്ന ഒരാൾ മരിച്ചു അപ്പം അദ്ദേഹത്തിൻ്റെ ഫോട്ടോ നമ്മൾ ഇടുന്നതിന് ഇന്ന ദിവസമാണ് ശവസംസ്കാരം ഇന്നടത്ത് വെച്ചാണ് എന്നു പറഞ്ഞോണ്ടുള്ളൊരു ഇതോടു കൂടി ഒരു പരസ്യം ഇതിടുന്നു അത് നമ്മൾ സ്റ്റാറ്റസൊക്കെയിടും അല്ലാതെ നമ്മൾ ആർക്കെങ്കിലൊക്കെ അയച്ചു കൊടുക്കും ഫേസ് ബുക്കിലും വാട്സപ്പിലൊക്കെ അത്രതന്നെ അതിനപ്പുറത്തേക്കൊന്നും നമ്മൾ ചെയ്യാറില്ല